എൻ്റെ സ്കൂളിൽ ലൈബ്രറി ഉണ്ടായിരുന്നു ഞാൻ കുട്ടികാലത്ത് വായിച്ച ബുക്കുകൾ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആട് ജീവിതം ഞാൻ വായിച്ച ഒരു ബുക്കാണ് ബെന്യാമിൻ്റെ എന്നെ എൻ്റെ മനസിനെ ഏറ്റവും കൂടുതൽ പിടിച്ച് ഉലച്ചൊരു ബുക്കായിരുന്നു ആട് ജീവീതം ഒരാള് ജീവിതം സ്വന്തം ജീവിതം ഏറ്റവും നല്ല രീതിയിലോട്ട് കൊണ്ട് പോകണം എന്ന് പറഞ്ഞ് വേറെ ഒരു നാട്ടിലേക്ക് പോയി അവിടെ അനുഭവിക്കുന്ന ദുരനുഭവങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ആട് ജീവിതം ഏറ്റവും വലിയ സങ്കടം ഉള്ള കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ബുക്ക് ശെരിക്കും ഉള്ള ഒരു ജീവിതത്തിൽ നിന്നാണ് ഉണ്ടായേക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അത്രയും കഷ്ടപ്പാടുകൾ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്നു ദയനീയമായ ഒരു ജീവിതം അയാൾക്ക് കൊണ്ട് നടക്കേണ്ടി വന്നു എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര വിഷമം ആകുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു ബുക്ക് വായിച്ചത് കൊണ്ട് തന്നെ ഇങ്ങനെയും കുറെ ജീവിതങ്ങൾ ഇങ്ങനെയും ജീവിതാനുഭവങ്ങളുണ്ട് അപ്പ്രകരമാണ് വരുന്നത് എന്ന് മനസിലാക്കാൻ പറ്റി പിന്നെ ഞാൻ വായിച്ചത് ചെറുപ്പകാലത്ത് ഞാൻ അധികം പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല ഞാൻ വായിച്ച ഒരു ബുക്ക് ബെന്യാമിൻ്റെ ആട് ജീവിതമാണ് പിന്നെ ചെറുകഥകള് നോവലുകള് അങ്ങനത്തെ ചെറിയ ചെറിയ ബുക്കുകള് ഇപ്പഴാണ് ഞാൻ കൂടുതൽ ബുക്കുകൾ വായിക്കുന്നത് ഞാൻ വായിക്കുന്ന ബുക്കുകൾ എല്ലാം ഫിക്ഷനൽ ബുക്കുകൾ ആയിരുന്നു അതേപോലെ ഫിക്ഷനൽ ആയിട്ടുള്ള പുതകങ്ങളാണ് ഞാൻ കൂടുതൽ വായിക്കാറ് അതും മലയാളം ഞാൻ ഇപ്പോൾ കുറവാണ് വായിക്കുന്നത് ഞാൻ ഇംഗ്ലീഷ് ബുക്സാണ് കൂടുതൽ വായിക്കുന്നത് ട്വിസ്റ്റഡ് സീരീസ് ഷാറ്റർ മി സീരീസ് അങ്ങനത്തെ സീരീസ് ആയിട്ടുള്ള അതായത് തുടർച്ചയായി പോകുന്ന പുസ്തകങ്ങളാണ് ഞാൻ കൂടുതൽ വായിക്കാറ് അങ്ങനെയെല്ലാമാണ് എൻ്റെ ഇഷ്ടങ്ങൾ